ഹലോ അ പറഞ്ഞോ കേൾക്കാം പറഞ്ഞോ അതേലോ ഓ ഓ ഓ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ വെഡ്ഡിംഗ് ആഹ് ഫോട്ടോ അതായത് ആൽബം ആൽബം ഡിസൈൻ ചെയ്യാൻ കുറച്ച് സമയമെടുത്തായിരുന്നു പിന്നെ വർക്ക് കുറേ പെൻഡിങ്ങ് ഉണ്ടായിരുന്നു അപ്പം കുറേ വർക്ക് ആയിട്ടൊക്കെ നടന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാം ഓൾമോസ്റ്റ് കൺഫോം എല്ലാം സെറ്റ് ചെയ്ത് വച്ചേക്കുവാണ് അപ്പം കുറച്ച് സമയം കൂടി എനിക്കു തരുമോ എനിക്കാണെങ്കിൽ അതായത് വർക്കെല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ് പിന്നെ ഇപ്പോൾ പേ ആൽബം അൽബത്തിൻ്റെ പേരൊക്കെയാണെങ്കിലും അടിച്ചുവച്ചേക്കുവാണ് എല്ലാം സെറ്റിലാണ് അതിപ്പോൾ എന്നത്തേക്കായിരുന്നു താങ്കൾക്ക് വേണ്ടത് ഓൾറെഡി വീഡിയോ എല്ലാം ഒക്കെയാണ് ആൽബത്തിൽ നിന്ന് രണ്ടു ബേസ് ബോർഡ് ചെയ്യാനുളളൂ അപ്പം ഈ വർക്കിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് കുറച്ച് വർക്ക് ഇതൊക്കെ ആയി നടന്നത് കൊണ്ടാണ് നിങ്ങളുടെ വർക്ക് ഇല്ല ഒ ഒ ഇല്ല ഇന്നത്തേക്കാണോ രണ്ട് ദിവസത്തേക്കാണോ എനിക്കറിയാം താങ്കളുടെ സിറ്റേഷ്വൻ എനിക്ക് അറിയാം പക്ഷേ വർക്ക് സീസൺ ആയി പോയത് കൊണ്ടാണ് അവിടെ എൻ്റെ ഭാഗത്താണ് തെറ്റ് എനിക്കറിയാം അപ്പോൾ എനിക്ക് കുറച്ച് സമയം അതായത് ഞാൻ നാളെ നാളെ നാളെ രണ്ട് ദിവസത്തിന് അകത്ത് തരാം ഉറപ്പായിട്ടും തരാം ഉറപ്പായിട്ടും തരാം പിന്നെ നിങ്ങൾ പറഞ്ഞ ആൽബത്തിൻ്റെ ലീഫ് എല്ലാം ഓക്കെ ആണോ അയച്ച് തന്ന പടമെല്ലാം ഓക്കെ ആണോ ആഹ് എനിക്ക് ആൽബം കൊണ്ടുവരുമ്പം ബാക്കി ഫണ്ട് തന്നാൽ മതി അല്ല ആൽബം ഉറപ്പായിട്ടും കൊണ്ട് തരും കൊണ്ടുപോകാം ഉറപ്പായിട്ടും എൻ്റെ ഏത് ഓക്കെ എനിക്കറിയാം നിങ്ങളുടെ സിറ്റേഷ്വൻ അറിയാം പക്ഷേ എൻ്റെ എൻ്റെ ഭാഗത്തും കൂടെ അതായത് വർക്ക് സീസൺ ആയിരുന്നു പിന്നെ ഇവിടെ സ്റ്റാഫ്ഫുകൾ സ്റ്റാഫ്ഫിന് ആണെങ്കിലും രണ്ടുപേർക്ക് ഒട്ടും വയ്യാതെയൊക്കെ ആയിട്ടും അവർക്ക് അവരുടെ ഹെൽത്ത് ഓക്കെ ആല്ലായിരുന്നു അപ്പം സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പിന്നെ ആൽബം പ്രിൻ്റ് അടിക്കാൻ കൊടുക്കുമ്പോൾ എന്തായാലും ഒരാഴ്ച സമയം വേണം അതുകൊണ്ടായിരുന്നു ഒന്നും തോന്നല്ല് ഞാൻ ഷുവറായിട്ടും ചെയ്യാം ഷുവറായിട്ടും ഉറപ്പായിട്ടും ഞാൻ രണ്ട് ദിവസത്തിനകം ചെയ്ത് തരാം ആഹ് ഓക്കെ താങ്ക്യു ഫണ്ട് മതി എനിക്ക് ഈ ആൽബം ആൽബം ഫുൾ ഓക്കെ ആയിട്ട് ഫണ്ട് തന്നാൽ മതി താങ്ക്യു താങ്ക്യു